തങ്ങളുടെ തൊഴിൽ സാഹചര്യങ്ങൾ ഒരുമി ഒരു മെച്ചപ്പെടുത്തുന്നതിനായി ഒരുമിച്ച് പ്രവർത്തിക്കുക എന്ന പൊതു ലക്ഷ്യമുള്ള ആളുകളുടെ ഒരു കൂട്ടമാണ് ട്രേഡ് യൂണിയൻ ഒരു രാജ്യത്തിൻ്റെ ആധുനിക വ്യവസായിക വ്യവസ്ഥയുടെ അനിവാര്യ ഭാഗമാണ് ട്രേഡ് യൂണിയനുകൾ എന്ന് ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ വളരെ കാലമായി അംഗീകരിച്ചിട്ടുണ്ട്

സ്ഥാപിതമായി ഇന്ത്യയിൽ നിരവധി ട്രേഡ് യൂണിയനുകൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല അവ വിവിധ മേഖലകളിലായി വ്യാപിച്ചുകിടക്കുന്ന തൊഴിൽ വർദ്ധന വയുടെ ട്രേഡ് യൂണിയൻ പ്രതിനിധീകരിക്കുന്ന ജീവനക്കാർക്ക് വളർ വളർച്ചക്ക് വളരെയധികം സാധ്യതയുണ്ട് ഇനി ഇന്ത്യയിലെ ട്രൈഡ് യൂണിയന്റെ ഉത്ഭവത്തെയും ചരിത്രത്തെയും കുറിച്ച് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം അതായത് ഇന്ത്യയിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനവും ഇന്ത്യയിലെ ട്രേഡ് യൂണിയൻ്റെ ചരിത്രവും രാജ്യത്തെ വൻകിട ഉൽപാദന മേഖലയുമായി ഇഴ ചേർന്ന് വളർന്നിട്ടുണ്ട് അത് നമ്മുടെ കാർഷിക മേഖലകൾക്കും ഒരുപാട് പ്രശ്നങ്ങളും വന്നിട്ടുണ്ട് ട്രേഡ് യൂണിയൻ വന്നതോടുകൂടി നമ്മളുടെ കർഷകർക്കും ഒരുപാട് പ്രശ്നങ്ങളും നാശനഷ്ടങ്ങളും വന്നിട്ടുണ്ട് മറ്റ് പല രാജ്യങ്ങളിലും സംഭവിച്ചതുപോലെ തന്നെ വൻകിട വ്യവസായിക യൂണിറ്റുകളുടെ വളർച്ച ജീവനക്കാരുടെ ജോലി സാഹചര്യങ്ങളെയും ജീവിത സാഹചര്യങ്ങളും നാടകീയമായി മാറ്റി

പുതിയതും സങ്കീർണവുമായ നിരവധി പ്രശ്നങ്ങൾക്ക് കാരണമായി യന്ത്രസാമഗ്രികളുടെ ആവിർഭാവം പുതിയ ഉൽപ്പന്ന ലൈനുകൾ വലിയ നഗരങ്ങളിലെ സംരഭങ്ങളുടെ കേന്ദ്രീകരണം എന്നിവ കാരണം വ്യവസായിക സാമൂഹിക മുതലാളിമാർക്കും തൊഴിലാളികൾക്കും ഇട തൊഴിലാളികൾക്കും ഒരുപാട്

വ്യക്തിഗത എതിർപ്പുകൾ തൊഴിലുടമകളിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയില്ല അതിനാൽ അവർ ഒന്നിച്ച് ചേർന്ന് തങ്ങുടെ തൊഴിലിലൂടെ മനുഷ്യത്വരഹിതമായ പെരുമാറ്റത്തിൽ നിന്ന് സ്വയം പ്രതിരോധിക്കാൻ ഒരു യൂണിയൻ രൂപീകരിച്ചു അവർ തൊഴിലാളി യൂണിയനുകൾ സൃഷ്ട്ടിക്കുകയും വലിയ തോതിൽ പ്രതിക്ഷേധങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു ഇത് ഇന്ത്യയിൽ ട്രേഡ് യൂണിയനുടെ ഉത്ഭവത്തിൻ്റെ അടയാളപ്പെടുത്തി പ്രസ്സ്ഥാനത്തെയും ഇന്ത്യയിലെ ട്രേഡ് യൂണിയനുടെ ചരിത്രത്തിലെ വികസനത്തിൻ്റെ ഘട്ടങ്ങളാണ് എൺപതുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലിൽ ബോംബയിൽ ഒരു നിർമ്മാണ തൊഴിലാളിയായ ഒരു തൊഴിലാളി കൺവെഷൻ സംഘടിപ്പിച്ചിരുന്നു അതുപോലെ തന്നെ നമ്മുടെ കർഷകർക്കും ഒരുപാട് ഭീഷണിയും കാര്യങ്ങളും എല്ലാം ഇതിനോട് അനുബന്ധിച്ച് ഉണ്ടായിട്ടുമുണ്ട്